ഒലിവിയ ടെക്സ്റ്റൈൽസ് ആണോ ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ വന്ന് ഒരു ടോപ്പ് എടുത്തായിരുന്നു കെട്ടോ ആ ആ ഒരു ഒരു മെറൂൺ കളറിലെ പാർട്ടി വെയർ അതുണ്ടോ അവിടെ ഞാൻ അഞ്ചെണ്ണമാണ് എടുത്തത് അതിനാണെങ്കിലേ ഭയങ്കര ലൂസാണ്

അ അ ആ ഒക്കെ ആ അതിൻറെ വേറെ ഉണ്ടോ വേറെ മോഡൽ ഒക്കെ ഉണ്ടോ അ അ അ ഒരു പത്ത് പതിനഞ്ച് ആ മെറൂൺ കളറിലെ ഒരു പത്ത് പതിനഞ്ചണ്ണം എടുത്തു വെക്കാൻ പറ്റുമോ പള്ളിപെരുന്നാളിന് ഇടാൻ പിള്ളേർക്ക് ഉടുക്കാൻ ആ ആ ഡിസ്കൗണ്ട് ഒക്കെ തരണേ ആ അ അ

അ അ അ ആ അ അ അ സൺഡേ ഉണ്ടാകുമോ വർക്കിംഗ് ഡേ ആണോ അ അ അ അ അ ഞങ്ങൾ എന്നാൽ സൺഡേ അങ്ങോട്ട് വരാം ഒരു പതിനഞ്ചണ്ണം ഇരുന്നോട്ടെ ആ അ അ അ അ അ ഞങ്ങൾ അന്നേരം ഇട്ടുനോക്കില്ലാട്ടോ കണ്ടങ്ങ് ഇഷ്ടപ്പെട്ടത് ഒരു ഊഹം വെച്ച് എടുത്തുകൊണ്ട് പോന്നതാണ് ആ ആ അ അത് ആയിരത്തി ഇരുന്നൂറിൻറെ അ അ അ

ആ ആ ആ ആ ആ ഞങ്ങള് സൺഡേ വരാമേ ഓക്കേ ഓക്കേ ഓക്കേ